എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഞാൻ ഒരിക്കൽ പോലും ഉണ്ടാക്കാൻ ശ്രമിക്കാത്ത ഒരൈറ്റമാണ് പൊറോട്ട എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉണ്ടാക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാന് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പത്തേന് മാവ് കുഴയ്ക്കണം മാവ് കുഴയ്ക്കുക എന്ന് പറയുന്നത് നല്ല ഒരുപാട് വെള്ളം ചേർക്കുകയോ ഒന്നുമില്ലാതെ അതിൻ്റെ പാകത്തിന് കയ്യിലെങ്ങും തൊടാതെ കുഴയ്ക്കുക എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയി ഉണ്ടാവണം എന്നില്ല നമ്മൾ ചിലപ്പോൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടുകയോ ഒക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ കൊഴക്കുമ്പത്തേന് കുഴച്ച് അത് നന്നായി എണ്ണയെല്ലാം പുരട്ടി നന്നായിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഈ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ എന്ന് ഉദ്ദേശിച്ചത് അതിനെ റസ്റ്റ് ചെയ്യുക റസ്റ്റ് ചെയ്യുമ്പത്തേന് അതിന് കുറച്ചും കൂടെ മയപ്പെടുത്താൻ വേണ്ടിയാണ് റസ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് മേശയിലിട്ട് അടിച്ച് അതിനെ നന്നായിട്ട് മയപ്പെടുത്തി അതിനെ കട്ട് ചെയ്ത് പിന്നെ അതിനെ പരത്തി പരത്തി നന്നായിട്ട് പരത്തി ഷേപ്പിലാക്കി വട്ടത്തിൽ ചുരുട്ടി ഒരു ഷേപ്പിലാക്കി ചുട്ട് ചപ്പാത്തിയുടെ ഉരുളൻ വെച്ച് ഉരുട്ടിപ്പരത്തി എടുത്ത് ചുട്ട് വരുമ്പത്തേന് തന്നെ നമുക്ക് ഒരുപാട് സമയം ചിലവാകും ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പത്തേന് അത് നന്നായി വരണം എന്നില്ല ചിലപ്പോൾ കല്ല് പോലെ ആവാറുണ്ട് സോഫ്റ്റ് ആവണമെന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഈ സാധനം ചെയ്യാൻ വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്